കൃഷിയെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ മൃഗങ്ങളെപ്പറ്റി എടുക്കാം അതായത് കുട്ടികളിൽ നമുക്ക് കണ്ടു പഠിക്കണം നമ്മൾകാരണവന്മാർ ചെയ്യുന്നത് കണ്ട് കുട്ടികൾ മൃഗങ്ങളെ സംരക്ഷിക്കും മൃഗങ്ങളെ പട്ടികുഞ്ഞായാലും പൂച്ചകുഞ്ഞായാലും ഒരു പശുക്കുട്ടി ആയാലും അവർക്ക് മക്കൾക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ട്ടമുള്ള കാര്യങ്ങളാണ് അവർ അത് നമ്മളെ ചെയ്യുന്നത് കണ്ടു പഠിച്ച് അവർ പഠിച്ച് പഠിച്ചിരിക്കും അതേപോലെ ചെറുകിട ബിസിനസ്സെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കാർണോമ്മാർ ചെയ്യുന്നുണ്ട് അപ്പം അവർ ചെയ്തോളും അവർ പ്രത്യേകിച്ച് അവരൊന്നും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല മരപ്പണി ആയാലും അങ്ങനെ തന്നെ അതേപോലെ അറ്റകുറ്റ പണികളൊക്കെ പിള്ളേർ കണ്ടുപിടിച്ച് വരും കോഴിവളർത്തൽ ആയാലും അവരെ നമ്മൾ ചെയ്യുന്നുണ്ട് മക്കളെ അതൊക്കെ നല്ല വേണ്ടപോലെ കൈകാര്യം ചെയ്തോളും അതൊന്നും വലിയ ഭാരപ്പെട്ട തൊഴിലല്ല പിന്നെ പശുവളർത്തൽ ആയാലും നമ്മൾ കാർണോമ്മാർ എന്തായാലും ചെയ്യും അത് കണ്ട് അവർ പശുക്കിടാക്കളെ നോക്കാനും പുല്ലുവെട്ടി കൊടുക്കാനും നമ്മുടെ ഒപ്പം അത് വിളിച്ചോണ്ട് പോയി അവരതൊക്കെ കണ്ട് ചെയ്തോളും പിന്നെ പറയാനുള്ളത് വിളകളെക്കുറിച്ചായാലും പച്ചക്കറി ആയാലും നമ്മളിപ്പം സ്കൂളുകളിൽ ആയാലും കുട്ടികളെക്കൊണ്ട് പച്ചക്കറി ചെയ്യിക്കുന്നുണ്ട് പല കൃഷികളും ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് അവർ കൂടുതലും കൃഷികളെപ്പറ്റി പഠിക്കും അവർ ചെയ്യാൻ ഉത്സാഹപ്പെടും അതെപ്പോലെ നമുക്ക് വേണ്ട പച്ചക്കറി ആയാലും വീട്ടുപരിസരത്ത് ആയാലും നമ്മൾ കാർണോമ്മാർ ചെയ്യുന്നത് കണ്ട് മക്കളും ചെയ്തു പഠിച്ചോലും പഠിച്ചോളും പിന്നെ പല തൊഴിലുകളുമുണ്ടല്ലോ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ തൊഴിലുകളുണ്ട് അതൊക്കെ അവരെക്കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അവരെക്കൊണ്ടത് നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്